അപ്പോൾ നമ്മള് ക്ഷേത്രങ്ങള് സന്ദ സന്ദർശിക്കുമ്പം പല രീതിയിലുള്ള ആചാരങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മള് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗുരുവായൂരക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാലവിടെ നമുക്ക് ഷർട്ടും മുണ്ട് അങ്ങനത്തെ കാര്യങ്ങള് മാത്രേ ഷർട്ടെന്ന് പറഞ്ഞ സാധനം നമ്മള് അവിടെ ഇടാൻ പറ്റില്ല ഷർട്ടൊക്കെ ഊരിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പിന്നെ ലുങ്കി മുണ്ടോ ബർമൂഡയോ പാന്റോ അങ്ങനേന്ന് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേറാൻ പറ്റില്ല നമുക്ക് മുണ്ട് തന്നെ ഉപയോഗിക്കണം അതായത് മുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ള മുണ്ടോ അല്ലങ്കിൽ കാവി മുണ്ടോ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവൊള്ളു അപ്പ അങ്ങനത്തെ കുറെ ആചാരങ്ങള് പിന്നെ അഹിന്ദുക്കളുണ്ടെങ്കിൽ അവർക്ക് ക്ഷേത്ര മുറ്റ മുറ്റത്തേക്ക് പ്രവേശനം കാര്യങ്ങളൊന്നും ഇല്ല അപ്പ അങ്ങനത്തെ പല രീതിയിലുള്ള ആചാരങ്ങളാണ് ഗുരുവായൂര് അമ്പലത്തില് ഉള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ പദ്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇതേപോലെക്കെ തന്നെയാണ് നമുക്ക് ഷർട്ട് ലുങ്കി ബനിയൻ ഇങ്ങനെത്തേന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി സാധിക്കില്ല പിന്നെ ചെരുപ്പൊക്കെ നമ്മള് പുറത്തും ഒക്കെ ഇടണ്ട ഒരിതുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള ഓരോ ആചാരങ്ങളാണ് ഓരോ ക്ഷേത്രത്തില് ഇപ്പം നമ്മുടെ ഇവിടുള്ള ശ്രീ മുത്തപ്പൻ്റെ ക്ഷേത്രവും കാര്യങ്ങളൊണ്ട് അവിടേന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആർക്കും വേണങ്കിലും കയറാം അങ്ങനത്തെ ഒരു പ്രശ്നമേ അവിടെ ഇല്ല അഹിന്ദു അഹിന്ദുക്കൾക്കാണങ്കിലും ആർക്ക് വേണങ്കിലും അവിടെ കയറാൻ വേണ്ടി സാധിക്കുന്നയാണ്